ബാലവേല എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ് അത് എന്ത്കൊണ്ട് ആ അതിലേക്ക് പോകുന്നു ആ ഒരു ചെറിയ പ്രായത്തില് തന്നെ ആ ഒരു വേലയിലേക്ക് അവർ ജോലി ചെയ്യേണ്ട സാഹചര്യം ചിലപ്പോൾ സാഹര്യം മൂലമായിരിക്കാം കുട്ടികളൊക്കെ അങ്ങനെ പോകുന്നത് ചിലപ്പം മാതാപിതാക്കൾ മരണപ്പെട്ടവരാകാം അല്ലെങ്കിൽ അവര്ക്ക് അസുഖം മൂലമോ ഒക്കെ സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുന്നവരാകാം അപ്പോൾ ആ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജീവിതം ജീവിക്കാനുള്ളതാണല്ലോ ഇത് ജീവിച്ച് തന്നെ തീര്ക്കണ്ടതല്ലേ അപ്പോൾ ആ ഒരു ലക്ഷ്യത്തെ വെച്ച് മുമ്പോട്ട് പോവുമ്പഴത്തേക്ക് അവര്ക്ക് കുട്ടികള്ക്കാണെങ്കിൽ ഇപ്പം പഠിക്കാനായിട്ടുള്ള സാഹചര്യം കാണത്തില്ല അപ്പം അവർ നിര്ബന്ധിതമായിട്ട് ആ ഒരു ജോലി തേടി പോവുന്ന ഒരു അവസ്ഥയുണ്ട് ചെലപ്പം അവർ നല്ല പഠിച്ച് നടക്കേണ്ട പ്രായമായിരിക്കാം എങ്കിലും അവർ ആ ഒരു പഠനമൊക്കെ ഉപേക്ഷിച്ച് ഒരു ജോലിയിലേക്ക് എന്തെങ്കിലും കുടുംബത്തെ പോറ്റാന് വേണ്ടിയിട്ട് ഒരു ജോലിയിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് നിര്ബന്ധിതരായി പോകുന്നവരാണ് പിന്നെ വേറൊരു കൂട്ടരുണ്ട് കുട്ടികൾ അവർ പഠിക്കാന് കഴിയത്തില്ല വിദ്യാഭ്യാസമൊന്നും വേണ്ടാ ഞങ്ങള്ക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് പോയാൽ മതി ആ ഒരു കാഴ്ചപ്പാടാവുമ്പഴത്തേക്ക് അവരുടെ പഠിത്തം ഒക്കെ നിര്ത്തി അത്യാവശ്യം എഴുതാനും വായിക്കാനുമൊക്കെ പഠിച്ച് ചിലപ്പോൾ അതുപോലും അറിയാന് വയ്യാതെയും പോകുന്നവരുണ്ട് എങ്കിൽ എവിടെയെങ്കിലും അവര്ക്ക് പൈസയാരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം പൈസ സമ്പാദിക്കണം പൈസ സമ്പാദിച്ച് ജീവിക്കണം പക്ഷെ എങ്ങനെ ജീവിക്കണമെന്നും ആര്ക്കും അറിയത്തില്ല എങ്ങനെ സമ്പാദിക്കണമെന്നും അറിയത്തില്ല അപ്പം അവർ ഏതെങ്കിലും ഒരു ജോലി തേടി അങ്ങ് പോകുവാണ് മിക്കവാറും ഇങ്ങനെയുള്ള ആ ഒരു ബാലവേലയിലേക്ക് ഏർപ്പെടുന്നതെല്ലാം ഹോട്ടലുകളിൽ ഒക്കെയാണ് ചെന്നെത്തുന്നത് അപ്പോൾ അവര്ക്ക് അവിടുന്ന് ഭക്ഷണം കിട്ടും പിന്നെ അവിടെ അത്യാവശ്യം പാത്രം കഴുകിയും അങ്ങനെ ഒരു ടേബിള് തുടച്ചും അങ്ങനെയുള്ള ആ ഒരു ജോലികളെക്കെ ചെയ്ത് പോയാൽ മതി അവര്ക്ക് ഒരു ദിവസം എത്രയാ കൂലി കിട്ടേണ്ട അവര്ക്കര്ഹതപ്പെട്ട കൂലി എത്രയാണ് അതവര്ക്ക് കിട്ടുന്നുണ്ടോ എന്നെക്കെപ്പോലും ചിന്തിക്കാനുള്ള ആ ഒരു സെന്സ് അവര്ക്കില്ല എങ്കിലും അവർ അതിലേക്കങ്ങ് പോകുകയാണ് ഇപ്പം എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇപ്പം ആ ബാലവേല എന്ന് പറയുന്നത് നിര്ത്തലാക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് സാഹചര്യം മൂലം പോവുന്നവരാണെങ്കിൽ അവര്ക്ക് ഗവണ്മെന്റ് വേണം അവരെ അവർ മറ്റൊരു ആ വേലയിലേക്ക് ജോലിയിലേക്ക് പോകാതെ അവര്ക്ക് ആ പഠിക്കേണ്ട സമയത്ത് പഠിക്കാനുള്ള ആ ഒരു സൗകര്യങ്ങളും ഇപ്പം ചെയ്ത് കൊടുക്കാമെങ്കിൽ ഒരു പരിധിവരെ നമുക്കിത് നിയന്ത്രിക്കാന് പറ്റും ഇപ്പം പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാല് പഠിക്കാനുള്ള മാത്രമല്ല പഠിച്ച് ആ പഠനം മാത്രമല്ല ഇപ്പം ബാക്കി കാര്യങ്ങളിലും വീട്ടിലെ ബാക്കി കാര്യങ്ങളെയൊക്കെ നോക്കേണ്ടി വരും അപ്പം ആ ഒരു കുടുംബത്തെ ഒന്ന് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിര്ബന്ധ സാഹചര്യം മൂലം ബാലവേലേയ്ക്ക് പോകുന്ന കുടുംബങ്ങളെ അപ്പം അവരുടെ ബാക്കി സാഹചര്യങ്ങളും കൂടെയൊക്കെ മനസ്സിലാക്കി അതുകൂടെയൊക്കെ ഒന്ന് ഗവണ്മെന്റിൻ്റെ തലത്തിൽനിന്ന് എന്തെങ്കിലും ഒരു ഇടപാട് ഉണ്ടായെങ്കില് മാത്രമെ അവര്ക്ക് അങ്ങനെ ആ ഒരു നല്ല നിലയിലേക്ക് ഒക്കെ എത്താന് എത്താൻ സാധിക്കൂ എന്നെങ്കിലും ബാലവേല എന്നത് പ്രോത്സാഹിപ്പിക്കാന് പറ്റുന്ന കാര്യം അല്ല ബാലവേല എന്ന പേരിൽ കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് അത് മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു ആര്ജവത്തം ഗവണ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം